ക്യാബ് ഡ്രൈവർ അല്ലേ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവണമായിരുന്നു ആ ആ ഒരു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ പോവണം മുപ്പതാം തീയതി ആ ആ ഫൈവ് ഡേ ട്രിപ്പ് ആണ് ഹലോ ആ ആ റൂമും ഫുഡും വേണം ഏ ഒരു പത്ത് പേർക്കുള്ളതാണെങ്കിൽ വണ്ടി ഉണ്ടാവുമോ

ആ ഓക്കെ ആ ട്രാവലർ മതി ആ ആ

ഇ ഇനോ ഇ ഇന്നോവയിൽ ആവുമ്പം എത്ര റേറ്റ് വരും ആ ഇല്ലില്ല മൂന്നാർ ആ ആ അതെ

ഫാമിലീസ് ആണ് അപ്പം

ആ ഡോർമിറ്ററി ആയി ഇല്ലല്ലോ ആ ആ ആ ആ ആ എമൗണ്ട് കുഴപ്പം ഇല്ല

രാവിലെ ഒരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴേക്കും ആ ഇവിടെ വന്ന് പിക്ക് ചെയ്യില്ലേ ആ മാനന്തവാടി ആ ആ വാട്ട്സ്ആപ്പ് ചെയ്യാം

എത്ര കേട്ടില്ല രണ്ടായിരം ആണോ ആ ആ ഇപ്പം തന്നെ അയയ്ക്കാം വാട്ട്സ്ആപ്പ് നമ്പർ അല്ല ജി പേ നമ്പർ ഇത് തന്നെ ആണോ വാട്ട്സ്ആപ്പ് നമ്പറും ഇത് തന്നെ അല്ലേ ആ കറണ്ട് ലൊക്കേഷൻ അയച്ചുതരാം

ആ ആ